ഇപ്പോൾ ഈ പ്രദേശങ്ങളിൽ നടക്കുന്ന തനതായ ആചാരങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ അമ്പലങ്ങളിലുള്ള ഉത്സവങ്ങൾ പെരുന്നാൾ പള്ളികളിലുള്ള പെരുന്നാളുകൾ ആ അതിനൊക്കെ വിദേശി വിദേശികൾ വന്നാലും എവിടെ നിന്നുള്ള ആൾക്കാർ വന്നാലും നമുക്കിവിടെ അവരെ അക്കൊമഡേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് അവരിവിടെ വരികയും അതിൽ ഭാഗമാകാനുള്ള അവകാശവും അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളും നമ്മളുണ്ടാക്കി കൊടുക്കാറുണ്ട് ഇപ്പോൾ ഉത്സവങ്ങളാണെങ്കിലും അതുപോലെ പള്ളിപ്പെരുന്നാളാണെങ്കിലും പൊതുവായിട്ട് നടത്തുന്ന ആചാരങ്ങളാണ് അല്ലെങ്കിൽ തനതായിട്ടുള്ള ആചാരങ്ങളാണ് അപ്പം ആർക്ക് വേണമെങ്കിലും അത് വന്ന് പങ്കെടുക്കാനുള്ള അവകാശം ഉണ്ട് അതിനുള്ള സാഹചര്യവും ഇവിടെയുണ്ട് അത് വിനോദസഞ്ചാരികളായാലും ആരായാലും പുറത്തു നിന്നുള്ള വിദേശികളായാലും ആർക്കു വേണമെങ്കിലും വന്ന് പങ്കെടുക്കാവുന്ന രീതിയിലാണ് നമ്മളിവിടെ നമ്മുടെ തനതായ ആചാരങ്ങളൊക്കെ ചെയ്യുന്നത് അമ്പലങ്ങളിൽ ഉത്സവങ്ങൾ അതും പുറത്തുകൂടെയൊക്കെ ആയിരിക്കും അമ്പലങ്ങളിൽ ഉള്ളിൽ കയറാനല്ല പുറത്ത് നിന്നുള്ള ആചാരങ്ങളാണ് കൂടുതലായിട്ടുമുള്ളത് അപ്പം അതുണ്ട് അതേപോലെ പള്ളികളിലാണെങ്കിലും അകത്ത് കയറാനും കുർബാനയിൽ പോലും പങ്കെടുക്കാനുമുള്ള അവകാശം അതുപോലെതന്നെ സാഹചര്യവും നമ്മള്ളൊരുക്കി കൊടുക്കുന്നുണ്ട് ആരു വന്നാലും പെരുന്നാളിന് നമുക്ക് പുറത്തുപോയി ഉള്ള പരിപാടികളുണ്ട് പുറത്തുള്ള ചെണ്ട മേളങ്ങൾ അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെയുണ്ട് അപ്പം തനതായിട്ടുള്ള ആ ആ രീതിയിലുള്ള ആചാരങ്ങളിലേത് ഏത് ആചാരങ്ങളിലാണെങ്കിലും ഫോറിനേഴ്സിനാണെങ്കിലും പുറത്തു നിന്ന് വരുന്നവർക്കാണെങ്കിലും ഭാഗമാകാനുള്ള സാഹചര്യം ഇവിടെയുണ്ട് ആർക്ക് വേണമെങ്കിലും വരികയോ ഇവിടെ ചെയ്യുകയോ ചെയ്യാവുന്നതാണ് തനതാചാരങ്ങളെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ അമ്പലങ്ങളിൽ ഉത്സവങ്ങൾ അതുപോലെ തന്നെ ഇവിടെയുള്ള പെരുന്നാളുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ ഇടയ്ക്ക് ഗാനമേളകൾ ഇവിടെ ചിലവർ നടത്താറുണ്ട് അങ്ങനെയൊക്കെ